ഹലോ പറഞ്ഞോ മോളോ എവിടെയാണ് മോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എത്ര നാളായി എത്ര നാളായി പോയിട്ട് ഇത് വരെയും പൈസ വന്നിട്ടില്ലേ കയറിയിട്ടില്ലേ ഞാൻ ചെക്ക് ചെയ്യട്ടെ ചെക്ക് ചെയ്തിട്ട് മാനേജറോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് ഞാൻ അതിന്റെ വിവരം അറിയിക്കാം കേട്ടോ പിന്നെ മോൾ എന്ത് എന്നാ ജോലി അല്ലേ അവിടെ യുക്കേയിൽ ആ ഉണ്ട് ആ എന്നാ ചെയ്യുവാണ് നിങ്ങൾ ലോൺ വല്ലതും എടുത്തിട്ടുണ്ടോ കൊടുത്ത് കൊണ്ടിരിക്കുകയാണോ ആ

ആ ഒന്ന് നോക്കട്ടെ കേട്ടോ നോക്കിയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വിവരം അറിയിക്കാമേ